ബുദ്ധിപരമായി പരീക്ഷിച്ച പുസ്തകമെന്ന് പറയുമ്പോൾ നമുക്ക് ഷെർലക് ഹോം ടോംസിൻ്റെ എടുക്കാം ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ആ ഒരു പുസ്തകം അത് പറയുമ്പോൾ അറിയാമല്ലോ കുറ്റാന്വേഷണം ഓരോ എന്താ ഓരോ കേസും ആ അയാൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതെങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് ആ സോൾവ് ചെയ്യുന്ന മെത്തേഡ് അവർക്ക് കിട്ടുന്ന ക്ലൂസ് അതിൽ നിന്നെങ്ങനെയാണ് ഡെവെലപ്പ് ചെയ്തിട്ട് അവർ ഈ ഒരു ക്രൈം സീനിലേക്ക് എത്തുന്നത് അതൊക്കെയാണ് ആ പുസ്തകത്തിൽ പറയുന്നത് വലിയൊരു വലിയൊരു സമാഹാരം പോലെയാണ് അത് അതിൻ്റെ ആ ഒരു ഡബ്ബ് ചെയ്ത വേർഷനാണ് ഞാൻ വായിച്ചിരിക്കുന്നത് പിന്നെന്താ പറയുക അതിലെ ഓരോ കഥകളും ഡിഫറന്റാണ് നമ്മൾ അത് വായിക്കുമ്പോൾ വായനക്കാരെ ഭയങ്കരമായിട്ട് ആകർഷിക്കണ രീതിയിലാണ് അതിലേയ്ക്ക് നമ്മൾ നമ്മളാണ് കേസ് അന്വേഷിക്കണതെന്നുള്ള ഒരു രീതിയിൽ നമ്മളത് മാറി വായനക്കാരെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് ആ ബുക്കിനുണ്ട് അതുപോലെത്തന്നെ അപ്പോൾ അതിലകത്തേ ഓരോ കഥകളും പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ക്ലൂ തരും അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും അയാളാണ് കുറ്റവാളി അല്ലെങ്കിൽ ഇങ്ങനെയാണത് പോവുന്നത് എന്ന രീതിയിൽ നമ്മൾ അസ്യൂം പക്ഷെ സത്യം പറഞ്ഞാൽ ടോട്ടലി ഡിഫറന്റാവും നമ്മൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളിലൂടെയാണ് അത് സഞ്ചരിക്കുക അയാൾ ഇപ്പോൾ ഷെർലക് ഹോംസാണ് അത് അന്വേഷിണതെന്ന് വെച്ചാൽ അയാൾ അയാളുടെ കേസ് അന്വേഷണ രീതി തന്നെ ഭയങ്കര വ്യത്യസ്തമായിരിക്കും നമ്മൾ ഡൗട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കുറ്റവാളിയെന്ന് വിചാരിക്കുന്ന ആൾ ചിലപ്പോൾ ഇന്നസെന്റ് ആയിരിക്കും ചിലപ്പോൾ അയാളൊരു പോലീസ് ഓഫീസറായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര ഇൻ്ററസ്റ്റിങ്ങ് ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ ഇതാണ് ബൂക്കാണത് പിന്നെ എന്താ പറയുക സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ബുക്കെന്നു പറയുമ്പോൾ കൂടുതലും കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ക്യൂര്യോസിറ്റി ഭയങ്കര ക്യൂര്യോസിറ്റി ജനറേറ്റ് ചെയ്യണൊരു ടൈപ്പ് ബുക്കാണ് നമ്മളെ ഇരുത്തി വായിപ്പിക്കും ഒരു കഥ കഴിഞ്ഞാൽ അടുത്ത കഥയിലേക്ക് പോവാൻ ഒരു ഭയങ്കര ക്യൂര്യോസിറ്റിയാണ് നമുക്കിതെത്രയും വേഗം തീർക്കണം ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണ് ഇതിൻ്റെ എൻഡിങ്ങ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു ക്യൂര്യോസിറ്റി തനിയെ ജനറേറ്റ് ചെയ്യും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ വായനക്കാരെ ഭയങ്കരായിട്ട് അട്രാക്ട് ചെയ്യണൊരു ടൈപ്പ് ബുക്കാണ് സുഹൃത്തുക്കൾക്കൊക്കെ വായിക്കാൻ കൊടുത്തിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിപ്ലൈ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും വായിച്ചതിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ പറ്റണ ഒരു ബെസ്ററ് ബുക്കായിട്ട് ഞാനതിനെ പ്രിഫർ ചെയ്യാം